ഹലോ ആ അതേല്ലോ ഓ അണപ്പല്ലിനോ എപ്പോഴാണ് വേദന ഉണ്ടാകാറ് ഫുഡ് കഴിക്കുമ്പം ആണോ അതോ നോര്മൽ ആയിട്ട് ഇരിക്കുമ്പോഴും വേദന ഉണ്ടാകാറുണ്ടോ രാത്രി സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ ആണോ ഉള്ളത് ഫുഡ് കഴിക്കാത്തപ്പം വേദനയില്ല ഓ വേദന ഉള്ളത് പറ അല്ലാത്തപ്പം നോര്മൽ ആയിട്ട് ഇരിക്കുമ്പോൾ ചെറിയ വേദന ഉണ്ട് അപ്പോൾ വേദന ഓക്കെ ഓക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഓക്കെ എന്തേലും ഉപ്പു വെള്ളമോ കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കിയായിരുന്നോ ഒന്നും ചെയ്തിട്ടില്ല അണപ്പല്ലിന് എത്ര നാളായി കുറേ ദിവസം ആയോ തുടങ്ങിയിട്ട് ടൂ വീക്കോ അത് ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല ഒരു ടാബ്ലെറ്റ് ഒന്നും വാങ്ങി കഴിച്ചില്ല ഓക്കെ പല്ലിന് എന്തെങ്കിലും കേടൊ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ കേടുണ്ട് എന്താ കേട് വരാന് എന്താണ് കാരണം നന്നായിട്ട് മധുരം മിഠായി ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നോ കഴിക്കാറുണ്ട് ഇപ്പഴും കഴിക്കാറുണ്ടോ എന്നിട്ട് അതെന്താ കേട് വന്നിട്ടും മനസിലായില്ലേ മധുരം തിന്നാണ് കേടിങ്ങനെ പല്ല് ഇങ്ങനെ ആയതെന്ന് മനസിലായില്ലായിരുന്നോ ഓക്കെ എത്ര വയസ്സ് ഉണ്ട് ഇയാൾക്ക് എത്ര വയസ്സ് ഉണ്ട് ഇയാൾക്ക് ഇരുപത്തിമൂന്നിലും മിഠായി കഴിച്ചിട്ട് പല്ല് കേട് വന്നു അതുകൊണ്ട് മിഠായി കഴിക്കാന് പാടില്ല എന്ന് തോന്നിയില്ല ഓവർ കഴിക്കാത്തപ്പഴാണോ പല്ല് കേടായത് എത്ര പല്ല് ഉണ്ട് കേട് ഒരു പല്ലിനോ ഓക്കെ അപ്പം നമുക്ക് ഒന്നെങ്കിൽ ആ പല്ല് എടുത്ത് കളയാം അല്ലെങ്കിൽ എന്തേലും പെയിന് കില്ലറോ കാര്യങ്ങളോ ഒക്കെ കഴിച്ച് നോക്കാം പെയിന് കില്ലർ കഴിച്ചിട്ട് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാം അല്ലെങ്കിൽ കേട് ഉള്ള പല്ല് നമുക്ക് അടയ്ക്കാം ഇതൊന്നും വേണ്ടെങ്കിൽ പല്ല് എടുത്ത് കളയാം പിന്നെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു പല്ല് എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ എളുപ്പം ബാക്കി റൂട്ട് കനാലും കാര്യങ്ങളും ഒക്കെ കുറച്ചുംകൂടെ കോംബ്ലിക്കേറ്റഡാണ് നല്ല വേദന എടുക്കും പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ ഇപ്പം എന്ത് ചെയ്യുകയാണ് വര്ക്ക് ചെയ്യുകയാണോ അതോ പഠിക്കുകയാണോ പഠിക്കുകയാണ് അപ്പം എപ്പഴും ഇങ്ങനെ അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ ഹോസ്പിറ്റലിൽ വരാനായിട്ട് ക്ലാസും കാര്യങ്ങളും അതും ഒക്കെ കാണുമല്ലോ അപ്പം ഇനി റൂട്ട് കനാൽ ചെയ്താലും ഒരു ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന കാര്യമല്ല റൂട്ട് കനാൽ

ഉം റൂട്ട് കനാൽ അല്ല പല്ല് എടുത്ത് കളയാം റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തീരുന്ന കാര്യമല്ല ഓരോരോ ഘട്ടം ഘട്ടമായി ഓരോരോ പ്രോസസ്സുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉം അതോ ഇയാളുടെ സമയം പോലെ ഒന്ന് ഇപ്പം പെയിന് കില്ലർ എടുത്ത് നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ നോക്കാം ഓക്കെ ശരി എന്നാൽ